എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്നേഹമാണ് അപ്പം സ്നേഹത്തോടെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു പ്രജോദനമായിട്ടൊക്കെ തീരാറുണ്ട് അപ്പം നല്ല ശക്തിയോടെ നമുക്കത് പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ സ്നേഹമെന്ന് പറഞ്ഞ ആ ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ബലഹീനതാന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെയിപ്പോൾ ആരെങ്കിലും സ്നേഹത്തോടെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വഞ്ചിക്കുവോ അങ്ങനത്തെ എന്തേലും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു തളർച്ചയായിട്ടൊക്കെ മാറാറുണ്ട് അപ്പം നമ്മുടെ എല്ലാം എല്ലാം നമ്മളെ നമ്മളപ്പോൾ ബലമൊക്കെ ചോർന്ന് പോവുന്ന ഒരവസ്ഥയൊക്കെ ആയിട്ടാണുള്ളത് അപ്പോൾ അത് എൻറ്റെയൊരു വലിയൊരു ഇതാണ് പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളപ്പോൾ സ്നേഹത്തോടെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ അതിന് ഭയങ്കര ഒരു ഇതായിട്ടാണ് എടുക്കുക ഒരു നല്ലൊരു എന്താ പറയാ കാര്യമായിട്ടാണ് എടുക്കുക പിന്നെ ബലഹീനമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ ആരെങ്കിലുമൊക്കെ തള്ളിപ്പറയാ നമ്മുടെ കൂടെ നിന്നിട്ട് എന്താ പറയാ നമ്മളെ വല്ലാണ്ട് അടിച്ച് താത്തികളയുക നമ്മളിപ്പോൾ സ്നേഹത്തോടെ പ്രകടിപ്പിക്കും പ്രകടിപ്പിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളെക്കുറിച്ച് പുറമെ ഉള്ള ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞ് നമ്മളെ വല്ലാണ്ട് തളർത്തി അവർ വന്ന് നമ്മളെ അടുത്ത് വന്നു പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ അവരോട് എന്താ പറയാ നമ്മൾ അവരെ കാണുന്നത് അപ്പോൾ വല്ലാണ്ട് നമ്മളെ കൂടെ നിന്നിട്ട് പിന്നെ ചതിക്കുന്ന ഒരു സ്വഭാവം ആയിട്ടാണ് മാറുന്നത് അപ്പം നമ്മൾ ഇത്രേം കാലം നമ്മൾ വിശ്വസ്ഥതയോടെ കൊണ്ടുനടന്ന ആളൊക്കെ നമ്മളെ നമ്മളെന്തെയ്യും മറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളതിപ്പം